വിദ്യാഭ്യാസത്തിന്റേയും തൊഴിലിൻ്റെയും കാര്യത്തിൽ ഇപ്പോൾ സ്ത്രീപുരുഷ സമത്വ വിവേചനങ്ങളൊന്നുമില്ല വിദ്യാഭ്യാസം സ്ക്കൂളുകളിലാണേലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ പോകാനും അതുപോലെത്തന്നെ തൊഴിൽ ഇപ്പോൾ സ്ത്രീകൾ വീട്ടിൽ ഇരിക്കുന്നൊന്നുമില്ല എല്ലാ സ്ത്രീകളും ഇപ്പം പുറത്തിറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുടുംബശ്രീൻ്റെ വരവാണ് മെയിനായിട്ട് സ്ത്രീകളെ പുറത്തോട്ട് അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറക്കാനുള്ള മെയിൻ കാരണം കുംടുംബശ്രീക്കൊക്കെ പോയിത്തുടങ്ങിയതോടു കൂടെ എല്ലാ സ്ത്രീകളും സ്വയം ശാക്തീകരണത്തിലേക്ക് വന്നു അവർക്ക് സ്വന്തം തൊഴിൽ ചെയ്ത് പൈ പൈസയുണ്ടാക്കാനുള്ള പ്രാപ്തി വന്നു ഇപ്പോൾ മിക്ക സ്ത്രീകളും തൊഴിൽ എന്തെങ്കിലും ചെറിയൊരു തൊഴിൽ ഉള്ളവരാണ് എല്ലാവരും ലിംഗസമത്വം എല്ലാവർക്കും ഒരേപോലെത്തന്നെ ആൺ പെൺ എന്ന വ്യത്യാസമില്ലാതെ ഇപ്പം നമുക്ക് ബസ്സിൽ പോവാനാണെങ്കിലും ചില പ്രദേശങ്ങളിൽ ഉണ്ട് എങ്കിൽപ്പോലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമിപ്പോൾ സ്ത്രീപുരുഷ ഒരേപോലെയാണ് അവകാശം